നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് സാഹിത്യത്തിലും കവിതയിലും മറ്റ് കലാ വിഷ്ക്കാരങ്ങളിലൊക്കെ മലയാള ഭാഷയുടെ ഉപയോഗം വളരെയധികം കൂടുതലാണ് അപ്പോള് മലയാളം നമ്മുടെ മാതൃഭാഷ ആയത് കൊണ്ടുതന്നെ അതിൻ്റെ ഒരു ഇതില് ഒരുപാട് സാഹിത്യവും അതുപോലെതന്നെ കവിതകളൊക്കെ ഉത്ഭവം കൊള്ളുക എന്നതിൽ നമ്മൾ വളരെയധികം അഭിമാനം കൊള്ളണം ഇപ്പോള് ഒരുപാട് സാഹിത്യപരമായിട്ടുള്ള കലാ സൃഷ്ടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോള് കഥകളായിക്കോട്ടെ കവിതകളായിക്കോട്ടെ നോവലുകളായിക്കോട്ടെ ഒട്ടനേകം സാഹിത്യപരമായിട്ടും കാവ്യപരമായിട്ടുള്ള കലാവിഷ്ക്കാരങ്ങള് നമുക്ക് മലയാള ഭാഷയിലാണ് കൂടുതലായിട്ട് സാ കാണാൻ സാധിക്കുക ഒരുപാട് നോവലിസ്റ്റുകളും അതുപോലെതന്നെ കവികളും കവയിത്രികളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് സുഗതകുമാരി അതുപോലെതന്നെ കുമാരനാശാൻ ജോസഫ് അന്നംകുട്ടി ജോസ് അങ്ങനെ ഒട്ടനേകം എഴുത്തുകാര് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് അവരെല്ലാരും നമുക്ക് ഒരുപാട് തരത്തിലുള്ള പുതിയ കലാവിഷ്ക്കാരങ്ങളാണ് തന്നുകൊണ്ടിരിക്കിന്നതും മലയാള ഭാഷയിലാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോള് ജോസഫ് അന്നം കുട്ടി ജോസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സ്നേഹം കാമം ഗ്രാ കാമം ഭ്രാന്ത് എന്ന ഒറ്റ പുസ്തകം കൊണ്ട് അദ്ദേഹം സ്നേഹത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും ഭ്രാന്തിനെക്കുറിച്ചും ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചും വളരെയധികം സാഹിത്യപരമായി രീതിയിലും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ജീവിത ജീവിത കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ജീവിതത്തില് അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടിവരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ആ ഒരു നോവലിലദ്ദേഹം പങ്കുവയ്ക്കുന്നത് അതുപോലെതന്നെ ഇപ്പോള് കവിതകളെടുക്കുവാണെങ്കില് ഒരുപാട് തരത്തിലുള്ള സാഹിത്യപരമായിട്ടുള്ള കവിതകള് നമുക്ക് കാണാനായിട്ട് സാധിക്കും നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു അങ്ങനെ ഒട്ടനേകം നല്ല നല്ല കവികളും കാവ്യ വരികളൊക്കെ നമുക്ക് കാണാനായിട്ടു സാധിക്കും എന്തുപറ്റി നമുക്കെന്ന് സുഗതകുമാരി അമ്മയുടെ അ കവിതയൊക്കെ എടുക്കുകയാണെങ്കിൽ അതില് ഒരു പീഡനത്തിനിരയാകുന്നൊരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിഞ്ചായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഒരു മനുഷ്യൻ പിച്ചിച്ചീന്തുന്ന ആ ഒരു രംഗമാണ് നമുക്കാ കവിതയിലൂടെ നമ്മുടെ മലയാളത്തിൻ്റെ കവയിത്രി ആയിട്ടുള്ള സുഗതകുമാരി അമ്മ നമ്മടെ മുമ്പില് വരച്ചുകാട്ടുന്നത് അപ്പോള് ഒട്ടനേകം കവിതകളും കാവ്യ സൃഷ്ടികളും നമുക്ക് കാണാനായിട്ടു സാധിക്കും അതെല്ലാം വളരെയധികം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള കവിതകളും കാവ്യങ്ങളും കലാ സൃഷ്ടികളും ഒക്കെയാണ് അമ്മത്തൊട്ടിലെന്നുള്ള കവിത എടുത്തുനോക്കുകയാണെങ്കിൽ റഫീക്ക് അഹമ്മദിന് അമ്മയെക്കുറിച്ചുള്ള കവിതയാണിത് വാർദ്ധക്യത്തിലെത്തിയ അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യത്തിനെക്കുറിച്ചിട്ടാണ് ആ കവിതയില് കൂടുതലായിട്ട് വിശേഷിപ്പിക്കുന്ന അങ്ങനെ ഒട്ടനേകം കവിത ഓരോ കവിതകളും അല്ലെങ്കിൽ സാഹിത്യ കൃതികളും എടുക്കുകയാണെങ്കില് നമുക്ക് അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒട്ടനേകം ഒട്ടനേകം പുതിയ അർത്ഥ തലങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്